ആദ്യമായി പാടാൻ എപ്പൊഴാണ് തോന്നിയത് നല്ലൊരു ചോദ്യം ആണ് പക്ഷേ അങ്ങനെ ആദ്യമായി പാടാൻ തോന്നിയ ഒരു പ്രായം എനിക്ക് ഓർക്കുന്നില്ല ഞാൻ ചെറുപ്പത്തിൽ അഞ്ചാം ക്ലാസിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് മ്യൂസിക് ക്ലാസ്സിൽ ചേർത്തു എൻ്റെ വീടിൻ്റെ ആടുത്തുതന്നെ ആയിരുന്നു ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നത് ആഴ്ചയിൽ ഒരു ക്ലാസ് ആയിരുന്നു ശനിയാഴ്ച വൈകുന്നേരം അച്ഛനെപ്പോഴും വൈകുന്നേരം എന്നെയും ഞാനും ഏട്ടനും ഒന്നിച്ച് മ്യൂസിക് പഠിക്കാൻ വരുമായിരുന്നു അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് അന്ന് ഞാൻ ചേർന്നത് എല്ലാ ശനിയാഴ്ച വന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോവുമായിരുന്നു ആദ്യാദ്യം ഒരു ഒരു കൊല്ലം അത്യാവശ്യം മര്യാദയ്ക്ക് വരാൻ തുടങ്ങി വീട്ടിൽ പോയി അതിന് അഭ്യസിക്കാനൊക്കെ തുടങ്ങി ക്ലാസ്സിക്കൽ കർണ്ണാടിക് ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം മെല്ലെ മെല്ലെ അതിൽ താല്പര്യം കുറഞ്ഞ് വന്നു എനിക്കെന്തോ ചെറുപ്പത്തിൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ ഒരു നിർബന്ധി കാരണം ഞാൻ പോയിക്കൊണ്ടുണ്ടായതായിരുന്നു മ്യൂസിക് ക്ലാസ്സിന് അപ്പോൾ ചെറുപ്പത്തിൽ പിന്നെ എന്തെന്ന് വെച്ചാൽ അന്ന് ഞായറാഴ്ച സമയത്ത് ഈ ഡി ഡി നാഷനലിൽ ഒരു രങ്കോലി എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു രാവിലെ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ ഏ അപ്പോൾ എന്റെ അമ്മ പൊതുവെ അത് കാണുമായിരുന്നു ഹിന്ദി പാട്ടിൻ്റെ പരിപാടിയാണ് അതിൽ പണ്ടത്തെ പാട്ടൊക്കെ നമ്മുടെ കിഷോർ കുമാറും പിന്നെ മൊഹമ്മദ് റഫിയും പിന്നെ യേശുദാസും ലതാ മങ്കേഷ്കാർ ചിത്ര ചേച്ചി ഇവരൊക്കെ പാടിയെ പാട്ടുകളൊക്കെ ഉദിത് നാരായൺ കുമാർ സാനു ഇത് ഇവരൊക്കെ പാടിയ പാട്ടുകളൊക്കെ അതിൽ കേൾക്കാമായിരുന്നു മനോഹരം എന്ന് വെച്ചാൽ ഒരു രക്ഷയുമില്ലാത്ത പാട്ടുകളൊക്കെയാന്ന് അതിൽ വരിക ചെറുപ്പകാലത്തിൽ എനിക്കത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കെട്ടുകൊണ്ടുണ്ടായിരുന്നു പാടിക്കോണ്ടും ഉണ്ടായിരുന്നു പലപ്പൊളും അത്ര ശ്രദ്ധിച്ച് പാടില്ലായിരുന്നു ഇൻട്രസ്റ്റ് ഉള്ളത് പോലെ അല്ല പാടുന്നത് പക്ഷേ കുറേ പേർ പറഞ്ഞിട്ടുണ്ട് നീ നന്നായി പാടും അനിരുദ്ധേ നീ നന്നായി പാടും പാട്ട് പഠിക്ക് നല്ലവണ്ണം പഠിക്ക് അങ്ങനെ കുറേ പേർ പറഞ്ഞായിരുന്നു സ്കൂളിലും പല സമയങ്ങളിലും ഞാൻ പാട്ടൊക്കെ പാടിയായിരുന്നു അങ്ങനെ കുറേ പേർ പറഞ്ഞായിരുന്നു പിന്നെ പിന്നെ കുറേ രണ്ട് കൊല്ലം മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയ ശേഷം കർണ്ണാടിക് ഞാൻ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ രണ്ടോ മൂന്നോ ക്ലാസിലോ പോകാനൊക്കെ തുടങ്ങി മെല്ലെ മെല്ലെ ഇൻട്രസ്റ്റ് കുറഞ്ഞു അങ്ങനെയായി മാസത്തിൽ അഞ്ച് ക്ലാസ് ഉണ്ടാവുമായിരുന്നു ശനിയാഴ്ച ശനിയാഴ്ച എല്ലാ എല്ലാ ശനിയാഴ്ച ഉണ്ടാവുമായിരുന്നു അപ്പോൾ ഞാൻ കുറഞ്ഞു തുടങ്ങി ക്ലാസ്സിന് പോകുന്നതൊക്കെ പിന്നെ പിന്നെ പിന്നെ ഒരു നാലോ ഒം എട്ടോ ഒമ്പതോ ക്ലാസ് ഒമ്പതാം ക്ലാസ് ആകുമ്പോൾ ഞാൻ കമ്പ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്തു മ്യൂസിക് അന്ന് ഞാൻ ഓർക്കുന്നു എട്ടാം ക്ലാസിൽ എൻ്റെ ഒരു മാത്സ് സാർ എന്നോട് പാടാൻ പറഞ്ഞായിരുന്നു ക്ലാസിലെ എല്ലാവരും കണ്ട് ഒരുപാട് പ്രശംസിച്ചു എൻ്റെ പൊതുവേ എൻ്റെ മാത്സ് സാർ വളരെ ആശ്ചര്യത്തോടെ എന്നെ നോക്കി പറഞ്ഞു നീ ഇത്രയും നന്നായി പാടുമല്ലേ അനിരുദ്ധേ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു പക്ഷേ ഒമ്പതാം ക്ലാസ് ആകുമ്പോൾ ഞാൻ കമ്പ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്തു മ്യൂസിക് അതിൻ്റെ കുറിച്ച് പിന്നെ ആലോചിച്ചതേ ഇല്ല പിന്നീട് ഞാൻ മെല്ലെ മെല്ലെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ പാടുവായിരുന്നു ഹിന്ദി പാട്ടിങ്ങനെ റെക്കോഡ് ചെയ്യും കേൾക്കും പഴയ ഹിന്ദി പാട്ടൊക്കെ ഒരു കാര്യം പിന്നെ ചെറുപ്പത്തിൽ ഇൽ ഇഷ്ടമില്ലാത്ത പല ഹിന്ദി പാട്ടുകളും പഴയ ഹിന്ദി പാട്ടുകളും

അങ്ങനെ ഞാൻ പാട്ട് റെക്കോഡ് ചെയ്തും ഇങ്ങനെ സ്വന്തം സ്വന്തം കേട്ടും കുറേ തുടങ്ങി കുറേ കഴിയുമ്പോൾ ഞാൻ പിന്നീട് പ്ലസ് ടു കഴിഞ്ഞ് ബി എസ് സി മാത്സ് എടുത്തു അങ്ങനെ മ്യൂസിക്കിന് കോൺസൻട്രേറ്റ് ചെയ്ത് പോയില്ല സൈഡ് ആയിട്ടിങ്ങനെ റെക്കോഡ് ചെയ്യുവോ എപ്പോഴെങ്കിലും റെക്കോഡ് ചെയ്ത് സ്വന്തം പാട്ട് കേൾക്കില്ലേ പൊതുവേ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്യുവായിരുന്നു മെല്ലെ മെല്ലെ നല്ല പാട്ടൊക്കെ നല്ല പാടുന്നത് പോലെ കേൾക്കാൻ തുടങ്ങി പിന്നീട് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ ബി എസ് സി മാത്സ് കഴിഞ്ഞ ശേഷം ഒരു ദിവസം ഇങ്ങനെ ഇരുന്നാലോചിച്ചു ഞാൻ ആദ്യമേ മ്യൂസിക് പഠിച്ചാലോ കൂടുതലൊന്നും ആലോചിച്ചില്ല അന്ന് ആ ആലോചിച്ച ദിവസം തന്നെ രാവിലെ ആയിരുന്നു ആലോചിച്ചത് വൈകുന്നേരം ഞാൻ എൻ്റെ മ്യൂസിക് ടീച്ചറെ കോൾ ചെയ്തു പണ്ട് പഠിപിച്ച ചെറുപ്പത്തിൽ പഠിപിച്ച മ്യൂസിക് ടീച്ചറിനെ കോൾ ചെയ്തു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു മ്യൂസിക് ക്ലാസ് എപ്പോഴൊക്കെയാണ് ഞാൻ പണ്ട് വന്നുകൊണ്ടിരുന്ന ചെക്കനാണ് അങ്ങനെ പറഞ്ഞു സാറിനോട് ഓക്കെ ശനിയാഴ്ച വരൂ എന്ന് പറഞ്ഞു സാർ അങ്ങനെ ശനിയാഴ്ച പോയ ശേഷം ശെനിയാഴ്ച പോയി ഞാൻ മ്യൂസിക് ക്ലാസിൽ ആ മ്യൂസിക് ക്ലാസിൽ പോയ ശേഷം അദ്ദേഹത്തിന് എന്നെ ഓർമ്മ ഉണ്ടായിരുന്നു ഓ നീയായിരുന്നോ വിളിച്ചത് എന്ന് പറഞ്ഞു ആ എന്തായാലും വളരെ സന്തോഷം ഉണ്ടായി കാരണം അത്രയും കൊല്ലം കഴിഞ്ഞു ഒരു ടീച്ചർ ഒരു സ്റ്റുഡന്റിനെ ഓർത്ത് വയ്ക്കുന്നത് വലിയൊരു കാര്യമാണല്ലോ അങ്ങനെ പിന്നെ സന്തോഷം ഉണ്ടായി അതിന് ശേഷം ഞാൻ മെല്ലെ മെല്ലെ പഠിച്ച് തുടങ്ങി ഇച്ചിരി എൻ്റെ നോളേജ് കൂടി സംഗീതത്തിലുള്ള ക്ലാസ്സിക്കൽ കർണാടിക്കിലുള്ള നോളേജ് കൂടി എൻ്റെ ടീച്ചർ ഒരുപാട് പഠി ഒരുപാട് നല്ല നല്ല നല്ല നോളേജ് ഉള്ളൊരു ടീച്ചർ ആണ് കർണ്ണാടിക് മ്യൂസിക്കിനെ കുറിച്ച് അദ്ദേഹം ആഴ്ചയിൽ ശനിയാഴ്ചയാണ് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ഞാൻ പഠിച്ചുതുടങ്ങിയ ശേഷം എല്ലാ ആഴ്ചയും കണ്ടിന്യുവസ് ആയിട്ട് ഒരാഴ്ചയും മിസ് ചെയ്യാതെ ക്ലാസ്സിൽ പോവാൻ തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന് അന്ന് പഠിപ്പിച്ചത് അന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തും തുടങ്ങി അങ്ങനെയാണ് എൻ്റെ മ്യൂസിക് എനിക്ക് വളരെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി മാറിയത് മ്യൂസിക് കാരണം എനിക്ക് മെൻ്റലി കൂടുതൽ പവർ കിട്ടിയിട്ടുണ്ട് കൂടുതലും ആലോചിച്ച് തല പുണ്ണാക്കുന്ന ഒരാളായിരുന്നു ഞാൻ മ്യൂസിക്കിന് മുമ്പ് മ്യൂസിക്കിന് ശേഷം കുറച്ചൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലും തലചൂടോ അങ്ങനെ ഒക്കെ ആവുമ്പോൾ ഞാൻ എടുത്ത് എൻ്റെ മ്യൂസിക് ബുക്ക് നോക്കും ഇച്ചിരി പാടി പ്രാക്ടീസ് ചെയ്യും അപ്പോൾ ഇച്ചിരി മൈൻഡ് റിലീഫ് ആവും അങ്ങനെ പിന്നെ പിന്നെ മ്യൂസിക് എനിക്കെന്തോ ഒരു കോണ്ടാക്ട് തോന്നി മ്യൂസിക്കിനോട് അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഇപ്പൊഴും പഠിക്കുന്നുണ്ട് മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് മ്യൂസിക് ഞാൻ എൻ്റെ ജീവനെ പോലെ കാണുന്നതാണ് മ്യൂസിക് അങ്ങനെ ഇപ്പോൾ പാട്ടും കേട്ടുകൊണ്ട് പാട്ടും പഠിച്ചുകൊണ്ട് ഞാൻ പാട്ടിനെ മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെയുണ്ട് പൊതുവേ ഞാൻ ആഗ്രഹങ്ങൾ ഒക്കെ പറയാത്ത ഒരാളാണ് ഇങ്ങനെ ഒക്കെ ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ട് മ്യൂസിക് അതിന് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ടീച്ചറും ഒടു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം ഒരു ഗ്രേറ്റ് സിങ്ങർ ആണ് അദ്ദേഹം എനിക്ക് എല്ലാ ആഴ്ച പഠിപ്പിക്കും അദ്ദേഹം ഇവിടെ നമ്മുടെ കാസർഗോഡിലും പിന്നെ മങ്ക്ളൂരിലും ക്ലാസ് എടുക്കും ശനിയാഴ്ച കാസർഗോഡിലും ഞായറാഴ്ച മങ്ക്ളൂരിലുമാണ് ക്ലാസ് എടുക്കുന്നത് ഞാൻ എല്ലാ ക്ലാസ്സും അറ്റെൻഡ് ചെയ്യും ശനിയാഴ്ച ഇവിടെ സാറിൻ്റെ ഒപ്പം ക്ലാസ് കഴിഞ്ഞ് മങ്ക്ളൂർ പോവും അവിടെയും സാറിൻ്റെ ക്ലാസ് അറ്റെൻഡ് ചെയ്യും അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ എട്ടാം തീയതി ആണ് ജോയിൻ ചെയ്തത് കണ്ടിന്യുവസ് ആയി വരാൻ തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഫെബ്രുവരി എത്തിക്കഴിഞ്ഞു ഏകദേശം എട്ടൊമ്പത് മാസം പഠിക്കാൻ തുടങ്ങി എട്ട് മാസമായി പഠിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് രണ്ടുമൂന്ന് മാസം കഴിയുന്നത് തോറും എൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എത്ര ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എൻ്റെ മ്യൂസിക് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതാണെൻ്റെ മോട്ടിവേഷൻ അപ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എടുത്തു നോക്കുമ്പോൾ തോന്നും പണ്ട് പാടിയതൊക്കെ വളരെ തെറ്റായിട്ടായിരുന്നു പാടിയത് എന്ന് റിയലൈസ് ചെയ്ത് തുടങ്ങും അപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവും എനിക്ക് ഇത്ര നോളെജ് കൂടി അപ്പോൾ അത് ആ ഒരു സന്തോഷം എനിക്ക് ഇനി എന്തായാലും തീർച്ചയായി മുന്നോട്ട് ഉണ്ടാവും കാരണം നമ്മൾ മ്യൂസിക് എത്ര ഇഷ്ടപ്പെടുന്നോ എത്ര അതിനെ നമ്മളുടേതാക്കാൻ ശ്രമിക്കുന്നോ അത്ര തന്നെ അത് കൂടിക്കൊണ്ട് അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് ആയിക്കോണ്ട് പോവും എന്നാണ് എൻറെ ഒരു വിശ്വാസം അത് തന്നെയാണ് വലിയ വലിയ ഗായകന്മാരും അവരൊക്കെ പറയുന്നത് പറയുന്നൊരു കാര്യം സാധകം അതായത് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താലേ അത് നമ്മൾ നമ്മൾതാക്കിയ മാറ്റാൻ പറ്റൂ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് പാട്ട് ഞാൻ ഇനി മുന്നോട്ട് എടുത്തുകൊണ്ട് പോകണം എന്നൊരു ആഗ്രഹം കൂടി ഉള്ള ഒരാളാണ് അതിന് വേണ്ടി ഏ ഏതറ്റം വരെ പോകാനും തയ്യാറുള്ള ഒരാളാണ് ഞാൻ അതിന് വേണ്ടി ഞാൻ ശ്രമിക്കും പാട്ട് പാടാൻ വേണ്ടി ശ്രമിക്കും പാട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും കർണ്ണാട്ടിക് മ്യൂസിക് എൻ്റെതാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കും